തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും സേവനങ്ങളും ഉള്ളത് അതിപ്പോൾ ഗവൺമെൻറ്റിൻ്റേതാക്കട്ടെ സ്വകാര്യ ആശുപത്രികളാകട്ടെ എല്ലാം ഇവിടെ കൂടുതലാണ് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ശ്രീ ചിത്ര ഹോസ്പിറ്റലുണ്ട് പിന്നെ ക്യാൻസറിൻ്റെ ട്രീട്മെൻ്റിനായിട്ട് പ്രത്യേക ആശുപത്രി ആർ സി സി എന്നും പറഞ്ഞ് ഹോസ്പിറ്റലും തിരുവനന്തപുരത്താണ് ഉള്ളത് സ്വകാര്യ ആശുപത്രികൾ ഇവിടെ കൂടുതലാണ് പി ആർസ് ജി ജി ഹോസ്പിറ്റൽ ഗൗരീശം പിന്നെ കണ്ണിനായി ചൈതന്യ ഹോസ്പിറ്റലുണ്ട് പ്രിസൈസ് ഹോസ്പിറ്റലുണ്ട് അങ്ങനെ പലതരം ആശുപത്രികളും ഉണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ക്ലിനിക്കുകൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് കാണാറുണ്ട് അവിടെ ആകുമ്പോൾ ഒരു ഡോക്ടർ മാത്രമാണ് കാണുന്നത് അവ അവരായിരിക്കും എല്ലാ രോഗികളെയും ചികിത്സിക്കുന്നത് പിന്നെ പ്രാഥമിക ഹെൽത്ത് സെൻ്ററുകളും ഓരോ സ്ഥലത്തും ഉണ്ട് കോവിഡ് മഹാമാരി സമയത്ത് ആശുപത്രികൾ വളരെ വളരെ അധികം സജ്ജികരിച്ചിരുന്നു അതിനെ കോവിഡിനെ നിന്നും പുറത്തി പുറത്തിറങ്ങാൻ കോവിഡ് ബാധിച്ചവരെ അവർ നന്നായി ശുശ്രൂഷിച്ചു ഡോക്ടർമാരായാലും ആശുപത്രിയിലെ എല്ലാ ആൾക്കാരും അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരും പി പി കിറ്റൊക്കെ ഇട്ട് വളരെ സുരക്ഷയോടെ ആയിരുന്നു നിന്നിരുന്നത് ഒരാൾക്കു ഒരു രോഗിക്ക് ഡോക്ടറിനെ കാണണമെങ്കിൽ തന്നെ അപ്പോയ്ൻമെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പനി നോക്കുമായിരുന്നു അവരുടെ കോവിഡ് ടെസ്റ്റ് നടത്തുമായിരുന്നു അങ്ങനെ പലതരം ടെസ്റ്റുകളിലൂടെ കടന്നാൽ മാത്രമേ ഡോക്ടറിനെ കാണാൻ പറ്റുന്നൊരു അവസരം കിട്ടുകയുണ്ടായിരുന്നുള്ളൂ കോവിഡ് സമയത്ത് കാരണം ഡോക്ടർമാരുടെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതാണ് അതു പോലെ തന്നെ രോഗികൾക്കും നേരത്തെ കോവിഡ് ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്തിരുന്നു ഹോസ്പിറ്റലിൽ കയറുന്നതിനു മുൻപു തന്നെ